ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ നമുക്ക് അങ്ങനെ പറയുകയാണെങ്കിൽ ജീവ കാരുണ്യ പ്രവർത്തനമായിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് പറയാൻ പറ്റുന്നത് മെഡിക്കൽ കോളേജിനെപ്പറ്റി തന്നെയാണ് അപ്പോൾ കൂടുതലായിട്ട് അവിടെ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവർ നല്ല രീതിക്ക് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് കാരണം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ സൗജന്യമായിട്ടുള്ള ചികിത്സ അതായത് നല്ല രീതിയ്ക്ക് തന്നെ ആൾക്കാർക്ക് ചികിത്സയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതിൽ നല്ലൊരു പങ്കു തന്നെ അവർ വഹിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കേരളത്തിലിപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ അത്യാവശ്യം നല്ല രീതിയ്ക്ക് തന്നെ പാവപ്പെട്ടവരായിക്കോട്ടെ പണക്കാരായിക്കോട്ടെ എല്ലാർക്കും നല്ല രീതിയ്ക്ക് തന്നെ ചികിത്സയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉണ്ടെങ്കിലും ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ തന്നെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇപ്പോൾ പുറമേ ഉള്ളവർ ഇപ്പോൾ വയനാട് ജില്ലയിൽ നിന്ന് വരുന്നവർ വരെ കൂടുതലായിട്ട് നമുക്ക് കാണാമല്ലോ എന്താ പറയുക കോഴക്കോട് ഉള്ള മെഡിക്കൽ മെഡിക്കൽ കോളേജിൽ തന്നെയാണ് വരുന്നേ അപ്പോൾ നല്ല രീതിയ്ക്ക് ചികിത്സയും കാര്യങ്ങളൊക്കെ അവർക്കു ലഭിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത് പിന്നേ കാരുണ്യ എന്നു പറയുന്ന പരിപാടികൾ പിന്നെ ഓരോ വൃദ്ധ സദനങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിപ്പോൾ വരുന്നുണ്ട് ഇപ്പോൾ എന്താ പറയുക പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കാരുണ്യ എന്നു പറയുന്ന സംഭവത്തിലൂടെ പൈസ ഒക്കെ പിരിച്ച് പോലെ രോഗികൾക്കും നല്ല രീതിയ്ക്ക് ചികിത്സയും കാര്യങ്ങളൊക്കെ നേടി കൊടുക്കാനൊക്കെ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഈ കോഴിക്കോട് ജില്ലയിൽ നമ്മൾ കണ്ടു വരുന്നുണ്ട് ഏറ്റവും കൂടുതലും ഇപ്പോൾ എന്താ പറയുക കോഴിക്കോട് ജില്ലയിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു ജീവകാരുണ്യ പ്രവർത്തനം മെഡിക്കൽ കോളേജ് തന്നെയാണ്